വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് എത്രത്തോളം നമുക്കത് ലഭിക്കാൻ പറ്റിയിട്ടുണ്ടോ അത്രത്തോളം നമ്മള് നമ്മളുടെ സ്വഭാവത്തിലാവട്ടെ നമ്മളുടെ ജീവിതത്തിലാവട്ടെ നമ്മളൊരുപാട് ചേഞ്ച് ആയിട്ടുണ്ടാവും സോ നമ്മളുടെ ജീവിതത്തില് ഏറ്റവും ഇമ്പോർട്ടൻറ്റായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് അപ്പോൾ വിദ്യാഭ്യാസം എൻ്റെ മാതാപിതാക്കളുടെ വിദ്യാഭ്യാസത്തിൽ പറയാമെന്ന് വച്ച് കഴിഞ്ഞാല് പത്താം ക്ലാസ്സൊക്കെ പഠിച്ചിട്ടൊള്ളൂ പത്താം ക്ലാസ്സ് വരെയൊക്കെ അന്നത്തെ കാ ലത്ത് പത്താം ക്ലാസ്സെന്ന് പറയുന്നത് വലിയൊരു ഒരു ഡിഗ്രി ലെവല് ഇന്നത്തെ ഒരു ഡിഗ്രി ലെവലിലുള്ള ഒരു പഠനം എന്നതാണ് അന്നത്തെ പത്താം ക്ലാസ്സെന്ന് പറയുന്നത് മാതാ അവരുടെ മാതാപിതാക്കളെന്ന് പറയുന്നത് രണ്ടാം ക്ലാസ്സോ മൂന്നാം ക്ലാസ്സോ അത്രേ പോയിട്ടുണ്ടാവുകയുള്ളൂ എത്രത്തോളം എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മളുടെ നോളജാണ് നമ്മളുടെ ബുദ്ധി ബുദ്ധി ശക്തി ആണവിടെ വളരുന്നത് ചെറുപ്പത്തിലവർക്ക് നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അവരത്രയും ചെറിയ രീതിയില് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവുക കാരണം അവർക്ക് ആഗ്രഹങ്ങള് ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ സാഹചര്യങ്ങൾ വീട്ടിലെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മള് നമ്മളുടെ പഠനമിരിക്കുക നമ്മള് എത്രത്തോളം എത്ര ദാരിദ്ര്യത്തിൽ ജനിച്ച് വീഴുന്നവരാണോ അത്രയും പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ട് പോകുകയാണ് അവിടെ എന്നാൽ ഇന്നത്ത കാലത്ത് എത്ര ദരിദ്രരാണെങ്കിലും ശരി വിദ്യാഭ്യാസത്തിനവര് മാതാപിതാക്കൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എത്ര പൈസ ഇല്ലങ്കിലും ശരി എൻ്റെ മകൻ അല്ലേ എൻ്റെ മകൾ വിദ്യാഭ്യാസ യോഗ്യത നേടിയിരിക്കണം സമൂഹത്തിലൊരു സ്ഥാനം വേണം സമൂഹം എന്ന് പറയുന്നത് സമൂഹത്തില് യുക്തി ബോധം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ കൂടെ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഒരു വിദ്യാഭ്യാസമില്ലാത്തൊരു വ്യക്തി എന്ന് പറയുന്നത് മൃഗത്തിന് തുല്യമായിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിദ്യ ലഭിച്ച വ്യക്തി എന്ന് പറയുന്നത് നല്ല വ്യക്തി എന്നാണ് അർഥമാക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതലും ഇന്നത്തെ കാലത്ത് പഴയകാലങ്ങളെ അപേക്ഷിച്ച് ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സാഹചാര്യങ്ങൾ വളരെ മോശമാണെങ്കിൽ പോലും എൻ്റെ മകൾ അല്ലേ എൻ്റെ മകൻ വിദ്യാഭ്യാസ യോഗ്യത നേടണം എന്ന് ചിന്തിക്കുന്ന എന്താ പറയുക രക്ഷിതാക്കളാണ് ഇന്നത്തെ സമൂഹത്തിലുള്ളത് കാരണം സമൂഹത്തിൻ്റെ എന്താ പറയുക മാറ്റങ്ങളാണത് സമൂഹത്തിൽ ഓരോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതിൽ ഒരു മാറ്റമാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് വിദ്യാഭ്യാസം വേണമെന്ന് ഉണ്ടെങ്കിൽ പോലും താല്പര്യപ്പെട്ടിട്ട് പോലും വിദ്യാഭ്യാസം കൊടുക്കാതെ വീട്ടിൽ അടച്ച് പൂട്ടി ഇടുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അതിന് കാരണം ആ അടച്ച് പൂട്ടി ഇടുന്നതിന് കാരണം തന്നെ വിദ്യാഭ്യാസമില്ലായ്മയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ സമൂഹം പഴയ സമൂഹത്തെ വച്ചിട്ട് വളരെയധിയകം മാറ്റങ്ങള് ഉണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ